വീട്ടുമുറ്റത്തേക്കും പൂന്തോട്ടത്തിലേക്കും പക്ഷികളെ ആകർഷിക്കാനായിട്ട് പല നിറത്തിലുള്ള പൂവുകൾ വച്ചാല് മതി നട്ടുവച്ചാല് മതി അതിലേക്കു പല നിറത്തിലുള്ള പൂവുകള് കാണുമ്പോള് അതിലേക്കു പക്ഷികള് വരും തേൻ കുടിക്കാനും മറ്റുമൊക്കെയായിട്ട് പിന്നെ നിരന്തരം എന്നും വരുന്ന പക്ഷികൾക്ക് ആഹാരവും വെള്ളവും അരിമണികളൊക്കെ ഇട്ടുകൊടുക്കാറുണ്ട് അപ്പോള് അതുകൊണ്ട് പക്ഷികള് വീണ്ടും വീണ്ടും വരാറുണ്ട് എന്നും നമ്മളങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നാളെയും കിട്ടുമല്ലോയെന്നുള്ള ആ ഒരു ഇതിലേ ഇതുകൊണ്ട് പക്ഷികളെല്ലാ ദിവസവും വരും ഇവിടെ നിന്നാണ് ഇന്നലെ ആഹാരം കിട്ടിയത് അതുകൊണ്ട് ഇന്നു വന്നാലും ഇവിടുന്ന് കിട്ടും എന്നുള്ള രീതിയില് ഒരു ദിവസം വച്ചാല് ആ ഒരു പ്രതീക്ഷയിലെല്ലാ ദിവസവും പക്ഷികള് വരും അങ്ങനെ ചെയ്താല് മതി അതാണ് പിന്നെ പല നിറത്തിലുള്ള പൂവുകളും തേൻ കൂടുതലുള്ള പൂവുകള് നട്ടുവയ്ക്കാനും പക്ഷികള് വരാനായിട്ടും സഹായിക്കുന്നു കൂടുതൽ തേൻ നുകരാനായിട്ട് അവർക്കറിയമല്ലോ ഏതൊക്കെ പൂക്കളിലാണ് തേനുള്ളതെന്നും ഇല്ലാത്തതെന്നും